ആണ് ഉണ്ടുണ്ട് തീർച്ചയായിട്ടുമുണ്ട് മസാജ് ഉണ്ട് മസാജുണ്ട് നമുക്ക് ബോഡി പെയിൻന് വരുന്ന ആളുകളെയൊക്കെ നിങ്ങൾ നല്ല ആയിട്ട് തിരിഞ്ഞ് ഇത് കഴിയുമ്പത് മാറി മാറാറുണ്ട് ആ അപ്പമതിന് പല റേറ്റാണ് അപ്പം ഏത് റേറ്റിൽ വേണമെന്ന് പറഞ്ഞാൽ കൊള്ളാവായിരുന്നു ആ മസാജ് ഓക്കെ ഇത് ബോഡീൻ്റെ മസാജ് ഒന്ന് വന്ന് പാക്കേജായിട്ടാണ് ഒരു മാസത്തേക്കാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ചിനിടക്ക് വരും അല്ലെങ്കിൽ പത്ത് ദിവസത്തേക്കാ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസത്തേക്കാ പതിനഞ്ച് ദിവസത്തേക്കാണ് വേണ്ടതല്ലേ പതിനഞ്ച് ദിവസത്തേക്കാണെങ്കിൽ പതിനായിരം പതിനായിരത്തിനും പതിനഞ്ചിനും ഇടക്കായിരിക്കും റേറ്റ് വരുക ആ ബൈ സ്റ്റാൻഡറ് വേണം ഒരാൾ വേണം തീർച്ചയായിട്ടും കൂടെ നിക്കാനൊരാൾ വേണം ആ അതും പതിനഞ്ച് ദിവസത്തേക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഫുഡൊക്കെയുണ്ട് കിഴിയൊക്കെയുണ്ട് ആ കൺവെർഷനൊക്കെയുണ്ട് പിന്നെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിടന്നുള്ള ചികിത്സയാണ് ഓരോ ദിവസം പല രീതീലാണ് ഫുഡിനൊക്കെയാണെങ്കിലും കുറച്ച് ക്രമം പാലിക്കണം ആഹാര ക്രമവുണ്ട് അത് നമുക്ക് നമ്മൾ ആ ചോദിച്ചോളൂ ആ പഥ്യമുണ്ട് പഥ്യമുണ്ട് തീർച്ചയായിട്ടെറച്ചി മീൻ ഫാറ്റ് അടങ്ങിയ ഇത് ആഹാരങ്ങളൊക്കെ കുറച്ചൊഴിവാക്കണം ആഹാര ക്രമം പാലിക്കണം തീർച്ചയായിട്ടും ഇവിടെ ചികിത്സ ആയപ്പറത്തോളത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിലത് പഥ്യം നമ്മൾ പിടിക്കണം വേറെ ഫ്രഷ് ആ അതൊക്കെയുണ്ട് ഉണ്ടുണ്ടുണ്ട് തീർച്ചയായിട്ടുമുണ്ട് ധാരയുണ്ട് നമ്മൾ എണ്ണത്തോണീൽ ഇങ്ങനെ കൂടുതൽ എന്തെങ്കിലൊക്കെ പെയിൻസുള്ളവരെയൊക്കെ എണ്ണത്തോണീലിങ്ങനെ ആ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പം ഇങ്ങനെ കിടത്തിയുള്ള ചികിത്സയുണ്ട് അല്ലാതെ മസാജ് കൂടാതെ അല്ലാതെ തലേലിങ്ങനെ ധാരയൊക്കെ ആ നെല്ലിക്ക ഇത് ചേർത്തുള്ള അതൊക്കെയുണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടെ അവൈലബിളാണ് ശരി ഓക്കെ